തയ്ക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഇന്ട്രെസ്റ്റ് ആണ് തയ്യലിൽ തയ്ക്കും ചുരിദാറും നൈറ്റിയും ബ്ലൗസുകളും എല്ലാം തയ്ക്കും പിന്നെ ഈ പഠിക്കാനായിട്ട് താല്പ്പര്യവും ഉണ്ട് പിന്നെ എംബ്രോയ്ഡറി വര്ക്ക് പിന്നെ പെയിന്റിങ്ങ് സാരി പ്രിന്റിങ്ങ് പിന്നെ പിന്നെ ഫാബ്രിക് പെയിന്റിങ്ങ് പേള് പെയിന്റിങ് ഇങ്ങനെയുള്ള കുറേ പെയിന്റിങ്ങൾ ഉണ്ട് അതിനോടൊക്കെ ഭയങ്കര താല്പ്പര്യമാണ് അത് പഠിക്കാനായിട്ട് ഇന്ട്രെസ്റ്റ് ആണ് പിന്നെ എംബ്രോയ്ഡ് വര്ക്ക് ചെയ്യാൻ സാരികളിൽ ചുരിദാറുകളിൽ എല്ലാ എംബ്രോയ്ഡറി വര്ക്ക് ചെയ്യാനും പിന്നെ പിന്നെ മുത്തുകൾ പിടിപ്പിക്കുന്നതിനും വര്ക്ക് ചെയ്യുന്നതിനും അതിനോട് ഭയങ്കര താല്പ്പര്യമുണ്ട് അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അത് പരീഷിക്കാന് അത് തുണി ഒക്കെ എടുത്ത് പ്രിന്റ് ചെയ്ത് പിന്നെ എബ്രോഡറി വര്ക്ക് ചെയ്ത് തയ്ച്ച് കൊടുക്കുന്നതിനോട് അതിനോടൊക്കെ താല്പ്പര്യമുണ്ട് അങ്ങനെത്തെ രീതികളൊക്കെ ചെയ്യുന്നതിനോട് നല്ല ഇന്ട്രെസ്റ്റ് ആണ് തയ്യൽ തയ്യലിൽ എബ്രോഡറി വര്ക്ക് പ്രിന്റിങ്ങ് പെയിന്റിങ്ങ് പിന്നെ അതെല്ലാം ഇഷ്ടമാണ് അതിനോടെല്ലാം താല്പ്പര്യം ഉണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ് ഇന്ട്രെസ്റ്റ് ആണ് ഇപ്പോള് തയ്ക്കുന്നും ഉണ്ട് തയ്യല് തയ്യൽ നടത്തുന്നുണ്ട് തയ്ക്കുന്ന കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഭയങ്കര ഇന്ട്രെസ്റ്റ് ആണ് ഇതെല്ലാം ചെയ്യുന്നതിനും പുതിയതായിട്ട് എബ്രോഡറി വര്ക്ക് ചെയ്യാനും പിന്നെ ഹാഹ്ബ്രിക് പെയിന്റ് ചെയ്യുന്നതിനും താല്പ്പര്യം ഉണ്ട് പിന്നെ വരച്ച് പ്രിൻറ്റ് ചെയ്യുന്നതിനോട് അതിനോട് താല്പ്പര്യം ഉണ്ട് പേള് പെയിന്റ് ചെയ്യാന് താല്പ്പര്യം ഉണ്ട് പിന്നെ അങ്ങനെ പുതിയ പുതിയ ഇപ്പഴ് ഇന്നത്തെ കാലത്തുള്ള പുതിയ രീതികൾ മിഷന് വര്ക്ക് അങ്ങനെയുള്ള പുതിയ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയത് പഠിക്കാനും പുതിയത് ചെയ്യാനും എബ്രോഡറി ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പുതിയ വര്ക്ക്കൾ ചെയ്യാനും പുതിയ രീതികൾ ചെയ്യാനും അതിനോടെല്ലാം ഭയങ്കര താല്പ്പര്യമാണ് അത് പരീക്ഷിച്ച് നോക്കുന്നതിനോട് നല്ല ഇന്ട്രെസ്റ്റ് ആണ് അങ്ങനെത്തെ രീതികൾ ചെയ്യാൻ സാരികളിൽ പ്രിന്റ് ചെയ്ത് പെയിന്റ് പെയിന്റ് വര്ക്ക് ചെയ്ത് അങ്ങനെയുള്ള പെയിന്റ്കൾ ചെയ്ത് വര്ക്ക് ചെയ്ത് ചെയ്യുന്നതിനോട് ഭയങ്കര താല്പ്പര്യം ഉണ്ട് അത് പഠിക്കാനായിട്ട് ഭയങ്കര താല്പ്പര്യം ഉണ്ട് വര്ക്ക് ചെയ്യുന്നത് പഠിക്കാനും പ്രിന്റ് അത് പിന്നെ പെയിന്റിങ്ങ് ചെയ്യുന്നതിനും അതിനോട് ഭയങ്കര താല്പ്പര്യം ഉണ്ട് ചെയ്യാനും ഭയങ്കര ഇന്ട്രെസ്റ്റ് ആണ് അത് പഠിക്കാനും ഭയങ്കര താല്പ്പര്യം ഉണ്ട് പുതിയ പുതിയ രീതികൾ ചെയ്യുന്നതിനോട് ഭയങ്കര താല്പ്പര്യമാണ് തയ്യൽ ഒരു ഒരുവിധപ്പെട്ട തയ്യലുകളെല്ലാം ചെയ്യുന്നുണ്ട് ബ്ലൗസ് തയ്ക്കാനും പിന്നെ ചുരിദാറ് നൈറ്റികൾ അങ്ങനെയുള്ള എല്ലാ സാധാ തയ്യൽ എല്ലാം ചെയ്യുന്നുണ്ട് ഇനി കൂടുതലായിട്ട് ചെയ്യാനായിട്ട് താല്പ്പര്യമുള്ളത് പരീക്ഷിക്കാനും ചെയ്യാനും താല്പ്പര്യമുള്ളത് പ്രിന്റഡ് ആണ് എംബ്രോഡറി വര്ക്ക് പിന്നെ പേള് പിടിപ്പിക്കുന്നത് അങ്ങനെത്തെ അങ്ങനെത്തെ വര്ക്ക്കൾ അതിനോടെല്ലാമാണ് താല്പ്പര്യം അത് കൂടുതൽ പഠിക്കാനും ഭയങ്കര ആഗ്രഹമാണ് പിന്നെ ഫാബ്രിക് പെയിന്റിനോട് ഭയങ്കര താല്പ്പര്യമുണ്ട് പിന്നേ പടം വരച്ച് പ്രിന്റ് ചെയ്യുന്നത് അതിനോട് താൽപ്പര്യം ഉണ്ട് അങ്ങനെ ഒരുപാട് ഈ തയ്യൽ പരമായിട്ടുള്ള ഭയങ്കര ഇന്ട്രെസ്റ്റ് ഉള്ള കാര്യമാണത് അത് അത് ചെയ്യാനും ഇഷ്ടമാണ് പുതിയതായിട്ട് പഠിക്കുന്നതിനും ഭയങ്കര താല്പ്പര്യമാണ് ഈ പെയിന്റിങ്ങ് പിന്നെ എംബ്രോഡറി വര്ക്ക്കൾ ഓരോ ഓരോന്ന് ഓരോ ചുരിദാറിൽ ആണെങ്കിലും സാരിയിലാണെങ്കിലും മൊത്തത്തിൽ പെയിന്റ് ചെയ്ത് വര്ക്ക് ചെയ്ത് പെയിന്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നതിനോട് ഭയങ്കര താല്പ്പര്യമുണ്ട് പഠിക്കാനും ഭയങ്കര ആഗ്രഹമുണ്ട് ഇങ്ങനെത്തെ ഉള്ള പുതിയ പുതിയ രീതികൾ ഇപ്പോഴത്തെ പുതിയ രീതികള് ഒക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇന്ട്രെസ്റ്റും താല്പ്പര്യവും ഉണ്ട് അതനുസരിച്ച് ചെയ്യണം എന്നാണ് ഒരു ആഗ്രഹവും തയ്ക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഇന്ട്രെസ്റ്റ് ആണ് ഓരോരോ പുതിയ ഇതൊക്കെ വര്ക്ക് ചെയ്യാനും എല്ലാത്തിനും ഭയങ്കര ഇന്ട്രെസ്റ്റും താല്പ്പര്യവും ഉണ്ട് അതനുസരിച്ച് ചെയ്യണം എന്ന് ഒരു ആഗ്രഹം ഉണ്ട് ആംബ്രോയ്ഡി വര്ക്ക് പെയിന്റിങ്ങ് പ്രിന്റിങ്ങ് അങ്ങനെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളോടും നല്ല താല്പ്പര്യവും നല്ല ഇന്ട്രെസ്റ്റും ആണ്